ഹലോ മുരിക്കാശ്ശേരിയിലെ ഫ്രൂട്ട്സ് കട ഇതല്ലേ ആ ആ അവിടെ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അവൈലബിള് ആയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നേ ഉം ഉം

എല്ലാ ഐറ്റംസും ഉണ്ടോ ആ ആ ഇപ്പം നെല്ലിക്കയ്ക്ക് എന്താണ് കിലോ വില നെല്ലിക്കയ്ക്ക് എന്താ കിലോ വില അറുപത് രൂപ ആ ചക്ക ചക്ക റേയ്റ്റ് കൂടുതലാണോ എൺപത് രൂപ ആ ആ ആ പിന്നെ ഏത്തക്ക ഏത്തക്കയ്ക്കോ എന്താ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ ആ ആ ഹാ അപ്പം ആയി ആ ഓർഡറ് തരാനായിരുന്നു ഇത് കൂട്ട് വീട്ടിൽ കൊണ്ട് വന്ന് തരുവായിരുന്നെ ഡെലിവറിയുണ്ടോ ഹോം ഡെലിവറിയുണ്ട് ആ ഉം ആ ആണോ ഗൂഗിൾ പേ എടുത്താൽ ചെയ്താൽ കുഴപ്പം ഇല്ലല്ലേ സൊ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി സ്ഥലം ഉപ്പുതോടാണേ ആ അവിടം വരെ ഉപ്പുതോട് ഇച്ചിരി ഉള്ളിലേക്ക് വരുന്ന മേഖലയാ അപ്പം കുഴപ്പം ഇല്ലായിരിക്കും അല്ലേ ഇച്ചിരി കയറി വരുന്ന അപ്പം ആ നമുക്കിച്ചിരി ബൾക്ക് ആയിട്ട് എടുക്കണമായിരുന്നു അന്നേരം എങ്ങനെയാന്നാ അതായത് സാധനം എന്നാന്നോ വീട്ടിലേക്കാണ് ഒരു ഫങ്ങ്ഷന് വേണ്ടിയാണ് ഇപ്പം മെയിന് ആയിട്ടും വേണ്ടത് ചക്ക പിന്നെ ഏത്തക്ക പിന്നെ കുറച്ച് നെല്ലിക്ക ആ ഇത് മൂന്ന് മതി ആ ഏകദേശം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഫ്രഷ് ആയിരിക്കും എന്ന് നമ്മളൊക്കെ എങ്ങനെ വിശ്വസിക്കും ഉം ആ ആ ആ ആക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ ഫുള്ള് ഫ്രഷ് ആയിട്ടായിരിക്കും അല്ലേ വരുന്നത് കാരണം നമുക്ക് ഒരു ഫങ്ങ്ഷന് ആണേ അപ്പം നമുക്ക് റിസ്ക്ക് എടുക്കാൻ പറ്റത്തില്ല നല്ല സാധനം തന്നെ കൊടുക്കണം ഫങ്ങ്ഷൻ നാളത്ത കഴിഞ്ഞാണെ അപ്പം നാളത്തേക്ക് സാധനം വേണം അതിന് വേണ്ടിയായിരുന്നു

ആണോ ഇന്ന് മുതൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനം പിന്നെ അതല്ലാതെ അത്യാവശ്യം ജൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാ ഉള്ളത് ജൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഓക്കേ ആ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുംകൂടെ വേണമായിരുന്നു അപ്പം ഞാൻ റേയ്റ്റ് കുറക്കണേ റേയ്റ്റ് കുറയ്ക്കാം അല്ലേ

ആ അപ്പം ഇങ്ങനെ സ്ഥലം ഉപ്പുതോട് പിന്നെ പിന്നെ ഞാൻ കറക്റ്റ് ലൊക്കേഷന് അയച്ച് തരാം അതായിരിക്കും നല്ലത് ആ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആ സാധനങ്ങൾ ചക്ക ഒരു നാല് കിലോ ആ ആ പിന്നെ പേയ്മെൻ്റ് ഞാൻ നാളെ ആൾ വരുമ്പോൾ കൊടുക്കാം കാരണം എനിക്ക് നാളെ വൈകിട്ടത്തേക്ക് മതി സാധനം കറക്റ്റ് എത്തണം അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടത്തേക്ക് മതി നാളെ വൈകിട്ട് ഒരു മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്ക് സാധനങ്ങൾ എത്തണം എന്നാൽ ഒരു നാലു മണിക്കുള്ളിൽ എന്തായാലും സാധനം വേണം കാരണം ഇപ്പം നമുക്കെല്ലാം കൂടെ നാളത്തേനെത്തേക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം അത്

ആ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് പിന്നെ മറ്റേ ക്യാൻസല് ആവില്ല അത് നിങ്ങൾ പ്രോഡക്റ്റ് കറക്റ്റ് സമയത്ത് എത്തിക്കണം പിന്നെ മറ്റേ പ്രോഡക്റ്റ് സെറ്റ് ശരിയായി കഴിയുമ്പോൾ ഒന്ന് കോള് ചെയ്യണം കോള് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ അയച്ച് തരാം ആ അയച്ച് തരാം ഓക്കേ